ഞാൻ വരുന്ന പ്രദേശം കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി ഒരു ടൗൺ ടൗൺ ബെയ്സ്ഡ് ആയൊരു സ്ഥലമാണ് അത് എറണാകുളം എന്നു പറഞ്ഞ സിറ്റി പോലെ ഞാൻ മെയിൻലി നോക്കുന്നത് ബിസിനസ്സ് സിറ്റികളില് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോള് സിറ്റീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഒരു ടൗണിൽ എസ്റ്റാബ്ലിഷ് ചെയ്താൽ നമുക്ക് അതിൻ്റേതായ ഒരുപാട് കുറവുകള് വരുന്നതായിട്ട് എനിക്കു കാണാൻ കഴിയുന്നുണ്ട്

കാഞ്ഞിരപ്പള്ളിയില് അങ്ങനത്തെ പ്രകൃതിപരമായ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രദേശങ്ങൾ ഉണ്ടോ എന്നു ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഞാൻ സ്പെസിഫിക്കായി നോക്കുന്ന ബിസിനസ് അത് കാഞ്ഞിരപ്പള്ളിയിൽ അങ്ങനെ എസ്റ്റാബ്ളിഷ് ചെയ്യാൻ പറ്റുമോ എന്നു ചോദിച്ചാല് ഇല്ല കാഞ്ഞിരപ്പള്ളിയില് എല്ലാ ബിസിനസ്സ് പോലെ ലൈക്ക് എല്ലാ സ്ഥലങ്ങളും പോലെ ലാൻഡുണ്ട് ഓക്കെ ലൈക് നമ്മള് ടൗണേരിയ കഴിഞ്ഞു പോകുമ്പോള് നമുക്കൊരുപാട് ലാൻഡ് കാണാം ലാൻഡ് നമുക്ക് നമുക്ക് ഇവിടെ മെയിൻലി യൂഡസെയ്യുന്ന എന്താ മറ്റേ ഗോൾഡ് ജ്വല്ലറി പിന്നെ അങ്ങനത്തെ എന്താ മറ്റേ സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെപരമായ സംഭവങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കാഞ്ഞിരപ്പള്ളി ടൗണില് മെയിന്ലി ബിസിനസ്സ് പ്രവർത്തിക്കുന്നത് വേറൊരുപാട് ബിസിനസ്സുകളുണ്ട് പക്ഷേ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്സ് കാഞ്ഞിരപ്പള്ളിയില് നടത്താൻ ഉള്ളൊരു പ്രകൃതിപരമായ സംഭവങ്ങളതങ്ങനെ കാണുന്നില്ല പിന്നെ വേറെ വേറെ കാഞ്ഞിരപ്പള്ളിയിൽ ഇലക്ട്രിസിറ്റി വാട്ടർ ലാൻഡിതെല്ലാം നോക്കേണ്ടതാണല്ലോ അപ്പോള് ഒരു ടൗണേരിയ ആയതുകൊണ്ട് ഇൻസഫിഷ്യൻ്റ് എറണാകുളം വച്ചു നോക്കുമ്പോള് ഇൻസഫിഷ്യൻ്റാ ആവാനുള്ള ചാൻസസ് വളരെ ഹൈയാ പിന്നെ നമ്മള് നോക്കുന്ന ഓഡിയൻസ് ഓഡിയൻസ് ഓഡിയൻസിൻ്റെയൊരു ഒരു നമ്പറൊരു നമ്പര് വേണം ഒരു ബിസിനസ്സ് അവിടെ സ്റ്റാർട്ടെയ്യുകയാണെങ്കില് പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്നുവച്ചാല് കാഞ്ഞിരപ്പള്ളി ടൗണില്നിന്ന് ഒരു ഉള്ളിലോട്ടൊരു സ്ഥലമാണ് അവിടെ എല്ലാവരും തപ്പിപ്പിടിച്ചു തേടി വരികയെന്നു പറയുന്നതൊരു ഇത്തിരി പാടുപെട്ട പണിയാണപ്പോള് സിറ്റികളിലാണെങ്കില് നമുക്കു നല്ല രീതിയില് ബിസിനസ് കൊണ്ടുപോവാം ഒരുപാട് പേർക്കറിയാം നല്ല രീതിയില് മാർക്കറ്റൊക്കെ ചെയ്യാം കാഞ്ഞിരപ്പള്ളിയൊരു ഈ സ്ഥലത്തൊരു ബിസിനസ് തുടങ്ങുകയെന്നുവച്ചാല് ഭയങ്കര എന്താണിപ്പോള് പറ്റും പറ്റില്ലെന്നല്ല എന്തായാലും ഓബ്യസ്ലി പറ്റുന്നൊരു കാര്യമാണത് പക്ഷെ നമ്മളുദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് കിട്ടത്തില്ല ഇപ്പോള് ഒരു ബിസിനസ്സിന് ലാൻഡ് മാത്രം പോരല്ലോ ലാൻഡ് മാത്രം പോരാ നമുക്ക് ആൾക്കാര് വേണം റിസോഴ്സസ് വേണം നമുക്കിപ്പോള് ലൈക്ക് മാൻമെയ്ഡ് റിസോഴ്സസ് ഒരുപാട് വരുന്നുണ്ട് നാച്ചുറൽ റിസോഴസസ്തിനെക്കാള് കൂടുതലും മാൻമെയഡ് റിസോഴസസും വരുന്നുണ്ട് അപ്പോഴത് ഇങ്ങനത്തെ ടൗൺ ഏരിയ അല്ലെങ്കിൽ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലങ്ങളിലോട്ട് നോക്കുകയാണെങ്കില് അതു വളരെ അതു സാധ്യമാകാനുള്ള ചാൻസസ് കുറവാണ് പിന്നെ ഇപ്പോള് കാഞ്ഞിരപ്പള്ളിയില് തുടങ്ങുകയാണെങ്കിൽ ഞാൻ നല്ലൊരു എന്താ ഗോൾഡ് ബിസിനസ് ഗോൾഡല്ലേ ബേക്കറി ബട്ടാ ബേക്കറി ഫുഡ് റെസ്റ്റോറൻ്റ് അങ്ങനത്തെ ടൈപ്പേ നോക്കത്തുള്ളൂ ആ ടൈപ്പ് ആ ടൈപ്പ് ബിസിനസ് നോക്കത്തുള്ളൂ അതിനു കാരണം അതെല്ലാവരുടെയും ഒരു ടേസ്റ്റിൽ പെടുന്നൊരു ബിസിനസ്സാണ് ഈ ബേക്കറി ഐറ്റംസ് പിന്നെ ഫുഡ് ഐറ്റംസ് പിന്നെ ഗോൾഡ് ഗോൾഡ് കടയൊക്കെ നടത്തുക മറ്റേ ജോയ് ആലുക്കാസോ അല്ലെങ്കില് ചെമ്മണ്ണൂർ ജ്വല്ലറീസ് അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കില് ഒന്നെങ്കില് ഔട്ട്ലെറ്റ് ആയിട്ടോ അല്ലെങ്കില് ഇൻഡിപെൻഡൻ്റായിട്ടൊരു ഗോൾഡ് എന്ന കട തുടങ്ങുക ജ്വലറീസൊക്കെ സെല് ചെയ്യുന്നൊരു കട അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കില് അതൊക്കെ ഫ്ലോറിഷ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതല് ഹൈയാ ഇപ്പോള് ആ ടൈപ്പ് ബിസിനസ്സൊക്കെ മെയിൻലി കാഞ്ഞിരപ്പള്ളിയിലോടത്തുള്ളൂ അതിലൊക്കെ കൂടുതലോടുന്നതുണ്ട് പക്ഷെ ഇപ്പോഴെൻ്റെ മനസ്സില് വരുന്നില്ല മെയിൻലി എൻ്റെ ആദ്യം മനസ്സില് വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോള് പറഞ്ഞത്